അഞ്ച് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് എട്ട് രണ്ടായിരം